ആ എന്ത് പറ്റി എന്താണ് വന്നത് എന്തായിരുന്നു എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഒരാഴ്ച്ച ഡോക്ടറെ ഒന്നും കാണിച്ചില്ല പല്ലിന് ഏത് പല്ലിനാണ്

ഇപ്പം എന്താണ് മരുന്ന് തന്നിട്ട് കുറവില്ലേ

ഞാൻ ഒരു മരുന്ന് എഴുതി തരാം അത് കഴിഞ്ഞിട്ട് അത് കുടിച്ച് നോക്ക് ഒരു മൂന്ന് ദിവസം കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് എക്സറേ എടുത്ത് ഒന്ന് നോക്കാം

അത് കഴിഞ്ഞിട്ട് ഒന്ന് എക്സ്റേ എടുത്തിട്ട് നമുക്ക് എന്താ പല്ലിന് കേട് എന്ന് നോക്കിയിട്ട് അത് എന്താന്ന് വെച്ചാൽ ചെയ്യാം ആ പിന്നെ നീരുണ്ടോ മുഖത്ത്

ഇപ്പം കാണിച്ചിട്ട് എത്ര ദിവസമായി അത് ശരി വീണ്ടും വന്നതാണ് ആ അപ്പോൾ ആ പല്ല് കേടായിരിക്കും ചിലപ്പം പല്ലിന് ഓട്ട എന്തേലും ഉണ്ടാകും പല്ലിൻ്റെ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ മൂന്ന് ദിവസത്തേക്ക് ഞാൻ മരുന്ന് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് വന്നിട്ട് എക്സ്റേ എടുത്തിട്ട് ഒന്ന് കാണിക്ക് കേട്ടോ ഹലോ ഹലോ ആ പനി പനിയോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല പല്ലിന് മാത്രമേ വേദന ഉള്ളു ആ എന്നാൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഇതിപ്പോൾ മൂന്ന് ദിവസത്തേക്ക് മരുന്ന് കുറിച്ചിട്ടുണ്ട് രാത്രിയും രാവിലേയും കഴിക്ക് കേട്ടോ